ആലപ്പുഴ എന്നത് തന്നെ വിനോദസഞ്ചാരികൾ ഏറ്റവും ആകർഷിക്കുന്ന ഒരു മേഖല തന്നെയാണ് പക്ഷേ വിനോദ സഞ്ചാരികൾ ഇങ്ങോട്ട് എത്തിപ്പെടുമ്പോൾ ഒത്തിരിയേറെ വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടി വരാറുണ്ട് അതിൽ കാലാവസ്ഥ ഞങ്ങളുടെ നാട്ടിലെ കാലാവസ്ഥ മഴ വന്നു കഴിഞ്ഞാൽ റോഡുകളും വെള്ളം കയറും കായലുകളിൽ നിന്നും ഇടത്തോടുകളിൽ നിന്നെല്ലാം വെള്ളം പൊങ്ങിയിട്ട് അത് റോഡുകളിലേക്കെല്ലാം കയറും അപ്പം നമ്മുടെ ഗതാഗതങ്ങളൊത്തിരിയേറെ അതിന് തടസ്സപ്പെടുത്തും ഒത്തിരിയേറെ തടസ്സം അവർക്കുണ്ടാകും ഗതാഗതം വണ്ടി ഓടിക്കുന്നതിനോ കാറുകൾ പെട്ടന്ന് തന്നെ ഏതെങ്കിലും റിസോർട്ടുകളിലേക്ക് എത്തിപ്പെടാനോ കുറച്ച് താമസിക്കും അപ്പം കാലാവസ്ഥ വ്യതിയാനങ്ങൾ മാറ്റങ്ങളുണ്ടാക്കുന്നതുകൊണ്ട് ആ സമയത്ത് വിനോദസഞ്ചാരികൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് വളരെയധികം കുറവായിരിക്കും അത് നമ്മുടെ വിനോദസഞ്ചാര മേഖലയെ തന്നെ ഒത്തിരിയേറെ ബാധിക്കാറുണ്ട് അവർ വരുന്ന ആ സഞ്ചാരികൾ നമ്മുടെ നാട്ടിലേക്കെത്താതിരിക്കുമ്പോൾ ഇവിടെയുള്ള ജോലികൾ ക്കാർക്ക് ജോലികൾ നഷ്ടമാവുകയും അവർക്ക് വീടുകളിൽ പട്ടിണിയും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി ഒക്കെ വരാറുണ്ട് അതുകൂടാതെ ഭക്ഷണത്തിനും ഇപ്പം ഏതെങ്കിലും സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾ ഇതിനെയെല്ലാം തരണം ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് പറയുന്ന ഭക്ഷണങ്ങൾ അപ്പപ്പോൾ ഉണ്ടാക്കി കൊടുക്കുവാൻ പെട്ടന്ന് നമ്മൾക്ക് സാധിക്കണമെന്നില്ല കാരണം ഗതാഗതം സൗകര്യം തന്നെയാണ് ഏറ്റവും പെട്ടന്ന് തോട് കായലുകളിൽ വെള്ളം പൊങ്ങി കഴിഞ്ഞാൽ അത് ചെറു തോടുകളിലേക്ക് കയറുകയും ചെറു തോടുകളിൽ നിന്ന് നമ്മുടെ റോഡുകളിലെക്കൊക്കെ കയറുകയും ചെയ്യുന്നു അപ്പം പെട്ടന്ന് വന്ന് നമുക്ക് പെട്ടന്ന് അവർക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണ സാധനങ്ങൾ മാത്രമേ നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുള്ളു അവർ പറയുന്ന സാധനങ്ങൾ പുറത്തുപോയി അതായത് ടൗൺ മേഖലകളിൽ പോയി ഈ നമ്മുടെ ഉൾ ഗ്രാമങ്ങളിലേക്കെത്തിച്ച് അവിടെ വന്ന് കുക്ക് ചെയ്ത് കൊടുക്കാൻ താമസമുണ്ടാകും അപ്പോൾ വിനോദസഞ്ചാരികൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അവരത് വേണ്ടാന്ന് വെച്ചിട്ട് ഇട്ടിട്ട് പോകും ഇത് നമ്മുടെ വിനോദസഞ്ചാരത്തെ ഒത്തിരിയേറെ ബാധിക്കാറുണ്ട് കാലാവസ്ഥ യിലുണ്ടാകുന്ന വ്യതിയാനം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നമുക്ക് ഒത്തിരിയേറെ മത്സ്യം സമ്പത്ത് നമ്മുടെ കായലുകളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാറുണ്ട് നല്ല അതായത് നല്ല കരിമീൻ കൊഞ്ച് ഞണ്ട് ഇതൊക്കെയുള്ള വിഭവങ്ങൾ നമുക്ക് തന്നെ പിടിച്ചു നമുക്ക് തന്നെ അവർക്ക് വെച്ചു കൊടുക്കാൻ സാധിക്കും പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടാതെ വരുമ്പം നമ്മളത് പുറത്ത് നിന്ന് എത്തിക്കേണ്ടി വരും വരവ് വരുന്നതോടു കൂടി അത് വിനോദ സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അതവർക്ക് ഇഷ്ടപ്പെടാതിരിക്കയും അവർ പല വിനോദ സഞ്ചാരികളും വന്നിട്ട് റിസോർട്ടുകളിൽ പ്രശ്നങ്ങളുണ്ടാക്കുകയും വഴക്കുകളുണ്ടാക്കുകയും ഒക്കെ ചെയ്ത് പോകാറുണ്ട് അതുകൊണ്ടു തന്നെ മഴക്കാലം ആകുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വിനോദസഞ്ചാരികൾ വരുന്നത് വളരെ കുറവാണ് അത് വിനോദസഞ്ചാരികൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്